കായിക വിനോദത്തിന് എന്തായാലും ഒരു ഏരിയയില് നമുക്കൊരു സ്പോര്ട്സ് ക്ലബ് വേണം അപ്പോൾ എന്നാൽ അവിടുത്തെ കുട്ടികള് എന്താണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികള് എല്ലാം മൊബൈല് അഡിക്ടുകളാണ് അപ്പോൾ ആ മൊബൈല് അഡിക്ടില് നിന്നും പിന്തിരിപ്പിക്കാന് എന്തായാലും ഒരു കായിക മേഖല വേണം ഇപ്പോൾ സ്കൂളുകളില് ഇപ്പോൾ എന്തൊരു ഇപ്പോൾ കായിക മേഖലയെന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി തന്നെ രൂപീകരിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് ഇപ്പോൾ സര്ക്കാര് തന്നെ ഒരുപാട് സ്പോര്ട്സിൽ സ്പോര്ട്സ് ക്ലബുകളിൽ സ്പോര്ട്സ് കിറ്റുകള് കൊടുക്കുന്നുണ്ട് അതുപോലെന്നെ കുട്ടികളെ ഒരു ഇപ്രൂവ്മെൻ്റ് ചെയ്യാന് വേണ്ടി ഓരോ കുട്ടിക്കും ഓരോ കഴിവുകൾ കാണും അത് നമ്മൾ വെറുതെ വീട്ടിൽ വെച്ചിങ്ങനെ മൊബൈലിൽ കളിക്കുന്ന സമയം കൊണ്ട് ഈ ഓരോന്ന് കഴിവുകൾ അവർ കണ്ടെത്തുകയും അവരെ അതിനുവേണ്ടി നമ്മൾ ഹാര്ഡ് വര്ക്ക് ചെയ്ത് അവരെ അങ്ങനെ നാളത്തെ ഇന്ത്യയിൽ നമുക്ക് താരങ്ങള് ആവുകയോ ഓരോരുത്തര്ക്ക് ഷട്ടില് ബാറ്റിലാവാം ഓരോരുത്തർക്ക് ക്രിക്കറ്റിലാവാം ഓരോരുത്തർ ഫുട്ബോളിലാവാം ഇങ്ങനെ ഓരോരുത്തരും ഓരോ കഴിവുകളായി പഠനത്തിലല്ലാത്ത കഴിവുകൾ ഓരോരുത്തർ കാണും അപ്പം അങ്ങനെ ഓരോരുത്തർ അതിനനുസരിച്ച് പ്രവര്ത്തിക്കുക അതാണ് നമുക്ക് കായിക വിനോദത്തിൽ നമുക്കൊരു പ്രാധാന്യം വേണ്ടത് നമുക്കെന്തായാലും ഇപ്പോൾ വരണ തലമുറകൾ എന്തായാലും നശിച്ചു പോവാതെ നമുക്ക് എന്തായാലും ഇതേ ഉള്ളൂ വിനോദങ്ങളിലും അതേപോലെ കായിക മേഖലയിൽ നമ്മൾ ഇപ്പോൾ അവരുടെ ശരീരവും നല്ല ഫിറ്റാകും ഫിറ്റാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് ചെയ്യാന് പറ്റും അതുപോലെ നമുക്ക് നല്ലൊരു ഹെല്ത്തിയാവണം അതുപോലെ ഈ മൊബൈല് അക്ടീവ് ആവുക നല്ലൊരു വിനോദങ്ങളിൽ തന്നെ അവര്ക്ക് ഏര്പ്പെടാം